പാട്ട് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് നമക്കെല്ലാവർക്കും എല്ലാ കപ്പാസിറ്റിയും ഉള്ള പാട്ടുകളും പ്രത്യേകിച്ച് ബേസിൽ പാടാൻ പറ്റുന്ന പാട്ടുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുത്താൽ പാടാൻ പറ്റാറില്ല ഞാൻ അ അധികം ഹൈ പോകുന്നതും പറ്റില്ല അപ്പോൾ ഒരു മീഡിയം ലെവലിൽ നമുക്ക് പാടാൻ പറ്റുന്ന ഒരു പാട്ട് പിന്നെ നമ്മൾ കൂടുതലായിട്ട് സംഗീതോന്നും അഭ്യസിക്കാത്തതു കൊണ്ട് തന്നെ ക്ലാസിക്കൽ ടച്ചിങ് കൂടുതലായിട്ടുള്ള പാട്ടുകളും നമുക്ക് പാടാൻ പറ്റില്ല അപ്പോൾ അത് രണ്ടും ശ്രദ്ധിച്ചിട്ട് നമുക്ക് ഇണങ്ങുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ടുള്ള പാട്ടുകൾ തിരഞ്ഞെടുക്കാനാണ് ശ്രദ്ധിക്കുന്നത്